സോഷ്യൽ മീഡിയ ഇന്ന് വളരെ സജീവമാണ് സോഷ്യൽ മീഡിയ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് എല്ലാ മെസ്സേജുകളും മറ്റൊക്കെ വിവരങ്ങളൊക്കെ കൈമാറുന്നതിന് മറ്റുമൊക്കെ സോഷ്യൽ മീഡിയ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിൽ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് ഒന്നും നമുക്ക് ആശയ വിനിമയത്തിന് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്നു പറയുന്നത് ഏതു വിവരങ്ങളും അതാത് സമയത്ത് നമുക്ക് വോയിസ്സായിട്ടും മെസ്സേജായിട്ടും പിക്ചറായിട്ടും മറ്റുമൊക്കെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും റിപ്ലൈ കിട്ടുന്നതിനും തിരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെയത് സഹായകമാണ് വളരെ അടിയന്തിരമായി നമ്മുടെ ഇടപെടേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആളുകളെ അറിയിക്കുന്നതിന് മറ്റും ഒക്കെ കൂടുതൽ ആളുകളെ അറിയിക്കുന്നതിന് മറ്റും ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വളരെ ഉപകാര പ്രദമാണ് എന്നാൽ അതോടൊപ്പം തന്നെ ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടു വരുന്ന രീതിയിലുള്ള പിന്നെ എന്താ പറയുക മയക്കു മരുന്നുകളുടെ ഉപയോഗം അതേ പോലെ തന്നെ മറ്റ് വേണ്ടാ ദീനങ്ങളൊക്കെ പകർത്തുന്നതിനും അറിയുന്നതിനും അത് കാണുന്നതിനും അത് കാണുന്നതൊക്കെ ഒരു പരിധി വരെ ഇന്നത്തെ ന്യൂ ജൻ പിള്ളേർ ജീവിതത്തിൽ പകർത്തുന്നതിനൊക്കെ അത് കാരണമാകുന്നുണ്ട് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് നമ്മൾ ഒരുപാട് സമയമൊന്നും അങ്ങനെ ചിലവഴിക്കാറില്ല എന്നാൽ ആവശ്യത്തിന് ഉപയോഗിക്കാറുണ്ട്